ഹലോ ഷാജി ഞാനേ ഇവിടുന്ന് തത്തമ്പിള്ളിയിൽ നിന്ന് വിളിക്കുവായിരുന്നേ ആ അതേ ഞാൻ എപ്പോൾ ഞങ്ങൾ വരുന്നൊരു സ്ഥലം ആയതുകൊണ്ട് വിളിച്ചതാണേ അവിടെ ഇപ്പം പുതിയ ഓഫർ വല്ലതും ഉണ്ടോ ശനിയാഴ്ച്ചത്തെ വൈകിട്ടത്തേക്ക് ഉള്ളതായിരുന്നു ആ ഓഫർ ഉണ്ടെങ്കിലേ അതിന്റെ ഇതൊന്ന് എനിക്ക് അയച്ച് തരുമോ ഞാനൊന്ന് നോക്കട്ടെ ആ ഓക്കെ അയച്ചോ ആ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ ആ ശരി എന്നാൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ ആ വന്നിട്ടുണ്ട് ഞാന് നോക്കിയിട്ട് പറയാമേ ഓക്കെ